ഞ്ഞം ഞങ്ങൾ ആചരിക്കുന്ന ദിവസം എല്ലാ നമക്കുത്സവം തന്നെയാണ് കേരളത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാ ഓണം വിഷു റംസാൻ ക്രിസ്മസ് ഈസ്റ്ററ് എല്ലാം ഒരു ഉത്സവം ഇത് തന്നെയാണ് ഞങ്ങളക്കെ ആചരിക്കാറുമുണ്ട് ആഘോഷിക്കറുമുണ്ട് പിന്നെ ഓരോരുത്തർക്ക് ഓരോ ഇതാണല്ലോ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും മുസ്ലീങ്ങൾക്കാണെങ്കിലും ഹിന്ദുക്കൾക്കാണെ അവരുടെതായ ഒരു ഉത്സവം കൊണ്ടെല്ലാവരും ആഘോഷിക്കുന്നുണ്ട് നമ്മളിപ്പം ഈസ്റ്ററും ക്രിസ്മസും ആഘോഷിക്കുന്നുണ്ട് പള്ളിയിൽ പോവും അതിന് വേണ്ട കൂട്ടുകാരെ വിളിക്കും ഫുഡ്ഡ് കൊടുക്കും നല്ല ഒരു രീതിയിൽ ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ അടുത്തന്നെ ഇപ്പം ഈസ്റ്ററ് വരുന്നുണ്ട് അപ്പളും എല്ലാരേം അയിലോക്കക്കാരെ ഒക്കെ വിളിച്ച് നല്ലൊരു ഉത്സവം നല്ലൊരു ഇതായിരിക്കും എല്ലാ ഇതിലും ആൾക്കാരും അവരുടെതായ ഉത്സവങ്ങളിത് വരുമ്പോൾ ഈ അത് ഉത്സവങ്ങളാണെങ്കിലും എല്ലാവരും ഒരൂ ഐക്യത്തോട് കൂടിയുള്ളൊരു ആഘോഷങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഏരിയേലൊക്കെ ഉള്ളത് ഇപ്പോൾ അല്ലാതെ മറ്റൊരുതില്ല ഇനി ഓണമാണെങ്കിലും വിഷുവാണെങ്കിലും ക്രിസ്മസാണെങ്കിലും റംസാനാണെങ്കിലും എല്ലാം എല്ലാവരും കൂടി ഒരു ആഘോഷമാണ് പള്ളിയിൽ പോകേണ്ടവർ പള്ളിയിൽ പോകും അമ്പലത്തിൽ പോകേണ്ടവർ അവിടെ പോകും മാസ്ക്കിൽ പോകുന്നവരങ്ങനെ പോകും എല്ലാവരും ഒരുമിച്ചൊരു കൂട്ടായ്മയിലൂടി പോകുന്ന ഉത്സവങ്ങളാണെല്ലാം നമ്മൾ കേരളത്തിലുള്ളത് ഞങ്ങളാഘോഷിക്കാറുമുണ്ട് ഞങ്ങൾ ഫുഡ്ഡൊണ്ടാക്കും എല്ലാവരേം വിളിക്കും ഫുഡ്ഡ് കൊടുക്കും നല്ലൊരു രീതിയിൽ ഒരു സന്തോഷത്തോടുള്ളൊരു ആഘോഷവാണത്

അത് എല്ലാ ഉത്സവങ്ങളും ഒരു ഉത്സവമെന്നല്ല നമ്മുടെ കേരളത്തിൽ ആണല്ലോ അപ്പം എല്ലാ കൂടുതലും ഉത്സവങ്ങളും ഉള്ളത് പിന്നെ അവിടെ ഞങ്ങളെ സംബന്ധിച്ചടത്തോളം ഞങ്ങളൊരൂ പറഞ്ഞ പറയുന്ന ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ ഈസ്റ്ററും ക്രിസ്മസുമല്ല ആഘോഷിക്കും അയലോക്കക്കാരെ എല്ലാരേം വിളിക്കും എല്ലാവരേം വിളിച്ച് ഞങ്ങൾ നല്ല ഫുഡ്ഡ് കൊടുക്കും പള്ളിയിൽ പോകും അങ്ങനെ അക്കെ ആഘോഷം ഉണ്ട് നല്ലഭിപ്രായം നല്ല എല്ലവരുവായിട്ടും നല്ല ഒരു ഇതാണ് വേറെ ഉത്സവം ഓണമാണെങ്കിലും എല്ലാവരും വിളിക്കും ഞങ്ങൾ പോകുവേം ചെയ്യും അങ്ങനക്കെ നല്ലൊരിതിലായിട്ടക്കെ ഉത്സാവമോ എല്ലാ ഉത്സവങ്ങളും ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്